വയനാട് ജില്ലയിൽ ജനപ്രിയമായ പിന്നെ ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതായത് പോത്തുംകാലാണ് പോത്തും കാലായിരുന്നു ഇവിടെ വയനാട് ജില്ലയിൽ ആദ്യമായിട്ട് ഇറങ്ങിയത് അത് ജനപ്രിയമായിട്ടുള്ള ഭക്ഷണം പിന്നെ പിന്നെയാണ് നമ്മൾ കോഴിക്കോട് അങ്ങനെയുള്ള പുറം രാജ്യങ്ങൾ പുറം ജില്ലയിലൊക്കെ ഇറങ്ങിയത് അപ്പോൾ അത് ഇവിടെ ഭയങ്കര ഫെയ്മസ് ആയിരുന്നു അങ്ങനെ സാധാരണ പാരമ്പരാഗത ഭക്ഷണം പറഞ്ഞിട്ട് സദ്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞ പോത്തുംകാല് ഉണ്ടാകാൻ വേണ്ടി ഏതൊക്കെ ചേരുവയാണെന്ന് ചോദിച്ചാൽ പോത്തുംകാല് അതായത് നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ സാധാരണ മസാലയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കും പിന്നെ അതിൻ്റുള്ളിലൊരു മജ്ജപോലത്തെ സംഭവം ഉണ്ട് അപ്പോൾ അത് അതാണ് നമ്മളത് കഴിക്കാറ് ഇവിടെയിപ്പം നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വിൽട്ടൺ റെസ്റ്റോറൻ്റ് വിൽട്ടൺ അടിപൊളി ഫുഡ്ഡാണ് ഒന്നും പറയാനില്ല പിന്നെ അത് കൽപ്പറ്റയുണ്ട് ബത്തേരിയുണ്ട് ആ റസ്റ്റോറൻ്റ് അതാണ് ഞാൻ പറയുന്നത്